നീന്തലെന്നു പറയുന്നതു തന്നെ വെള്ളത്തിൽ കൂടെയുള്ള ഒരു അഭ്യാസമായതു കൊണ്ടു തന്നെ നമ്മൾക്ക് നീന്താൻ ഇറങ്ങുന്നവർ അധികം പരിചയമില്ലാത്തവരാണെങ്കിൽ കൂടുതൽ ലൈഫ് ജാക്കറ്റ് അല്ലെങ്കിൽ വാട്ടർ ട്യൂബ് അങ്ങനെയുള്ളതിലായിരിക്കും നമ്മൾ നീന്താനായിട്ട് തുടങ്ങുന്നത് അതു പോലെ ഒരു ദൂര സ്ഥലത്തേക്ക് നീന്തുമ്പോഴാണെങ്കിലും നമ്മൾ സുരക്ഷിതരായിട്ട് ഇരിക്കാനായിട്ട് ലൈഫ് ജാക്കറ്റ് ഇടുന്നത് തന്നെ ആയിരിക്കും എപ്പോഴും നല്ലത് പിന്നെ നമ്മൾക്ക് ഏറ്റവും നല്ലൊരു വ്യായാമം തന്നെയാണ് നീന്തലെന്നു പറയുന്നത് അപ്പോൾ നീന്തൽ അറിയാവുന്നവർക്ക് അത് എങ്ങനെയും അതിനെ നീന്തി പേ കരപറ്റിക്കാനായിട്ട് പറ്റും അതു പോലെ നീന്തുന്നതു മൂലം നമ്മുടെ ഹൃദയത്തിനും ശ്വാസകോശത്തിനുമൊക്കെ നല്ലയൊരു മര നല്ലയൊരു എക്സസൈസ് തന്നെയാണ് നീന്തൽ എന്നുള്ളത് അപ്പം നമ്മൾക്ക് അകലെയുള്ള സഥലങ്ങളിലേക്ക് നീന്തുമ്പോൾ നമ്മൾ കൂടുതലും ഈ ഒഴുക്കിനെതിരെയൊക്കെ നീന്തേണ്ടിവരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ ശക്തമായ എന്താ ആർജ്ജവം ഊർജ്ജം ആർജ്ജിച്ചു വേണം നമ്മൾ നീന്തുന്നതിന് ശക്തമായ ഒഴുക്കുകൾ വരുമ്പോൾ നീന്താതിരിക്കുന്നതു തന്നെയാണ് കാര്യം ഒഴുക്കിനെതിരെ നീന്തുമ്പോൾ നമ്മൾ പെട്ടെന്നു തളർന്നു പോകാൻ സാദ്ധ്യതയുണ്ട് അപ്പോൾ നമ്മൾ അതു കണ്ട് പിന്നെ അല്ലെങ്കിൽ അതിന് ഒഴുക്കിൽ പെട്ടു പോകാനുമുള്ള സാദ്ധ്യതയുണ്ട് അതു നമ്മൾ കണ്ടു കൊണ്ടു വേണം അത് ഏറ്റവും വലിയൊരു തടസ്സമാണ് നീന്തലിന് കാര്യം നമ്മുടെ ശരീരത്തിൻ്റെ ആയാസം മുഴുവനും എടുത്തു വേണം ഒഴുകിനെതിരെ നമ്മൾ ശേ നീന്തേണ്ടി വരുന്നത് അതല്ല ഒഴുക്കിനൊപ്പം നീന്തുവാണെങ്കിലും നമ്മൾ ചിലപ്പം വലിയ കയത്തിൽ പെട്ടു പോകാനുള്ള സാദ്ധ്യതയുണ്ട് അപ്പം നമ്മൾ നീന്താൻ ഇറങ്ങുമ്പോളെപ്പോഴും ശ്രദ്ധിക്കണം പാറകെട്ടുകളുള്ള അതു പോലെ നിരന്തരമായി വെള്ളമൊഴുകുന്ന സ്ഥലമാണെങ്കിൽ അവിടെ പാറകളുടെ മേലെ പായലും പൂപലും ഒക്കെ ഉണ്ടാകാനുള്ള സാദ്ധ്യതയുണ്ട് അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ വഴുവഴുപ്പുള്ളതു കാരണം നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ നമ്മൾ തെന്നി പോകാൻ സാദ്ധ്യതകൾ ഏറെയാണ് അപ്പോൾ നമ്മളതൊക്കെ ശ്രദ്ധിച്ചുവേണം ഒന്ന് നീന്താനായിട്ട് ഇറങ്ങേണ്ടത് പിന്നെ പായൽ പിടിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുക്കൊരെത്തും ഒന്നും കിട്ടത്തില്ല നമ്മൾ അപകടത്തിൽ പെടാനുള്ള സാദ്ധ്യതകൾ വളരെ കൂടുതലാണ് പിന്നെ ഈ കഴിഞ്ഞ ഇടക്ക് നമ്മൾ കണ്ടത് പോലെതന്നെ മഴകാലങ്ങളിലൊന്നും അരുവികളിലും അവിടെയൊന്നും പോയി നീന്താതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യം കാര്യം നമുക്ക് ന അറിയത്തില്ല എപ്പോഴായിരിക്കും മഴ നമ്മളെ ഒഴുക്ക് ഉണ്ടാകുന്നതെന്നോ ഉരുൾപൊട്ടലോ അങ്ങനെയുള്ളതൊക്കെ വന്ന് മലകൾ ഇടിഞ്ഞുവീഴുകയും അങ്ങനെയൊക്കെ പെട്ട് നമ്മൾ അപകടത്തിൽ പോകാനുള്ള സാദ്ധ്യതകൾ ഏറെയാണ് എത്രയാണെന്നു പറഞ്ഞെന്നാൽ നമ്മൾ ഒഴ് നീന്താൻ ഒരുങ്ങുമ്പോൾ തന്നെ നമ്മളൊരു ലൈഫ് ജാക്കറ്റ് കരുതുന്നത് വളരെ പ്രയോജനപ്രദമായിരിക്കും കാരണം അതാകുമ്പോൾ നമ്മൾ കഴിവതും ഏതു കയത്തിൽ പെട്ടാലും പൊങ്ങി കിടക്കാനുള്ള സാദ്ധ്യതകൾ കൂടുതലായിരിക്കും അപ്പോഴൊരു ലൈഫ് ജാക്കറ്റ് എന്നു പറയുന്നതും അതു പോലെ നമ്മളൊറ്റയ്ക്ക് നിന്താനിറങ്ങരുത് നിന്താനിറങ്ങുമ്പോൾ മറ്റുള്ളവരാരെങ്കിലും കൂടെയുള്ളതോ അല്ലെങ്കിൽ കരക്കാണെങ്കിലും മറ്റുള്ളവർ കാണികളായിട്ടുള്ളതും വളരെ നല്ലതായിരിക്കും ഒരപകടം പിടഞ്ഞെന്നാൽ അവരാണെങ്കിലും നമ്മളെ രക്ഷി